ഹലോ ആ എടീ ഞാൻ വിളിച്ചത് ഞാനൊരു യാത്ര പോകുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഊബറ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അപ്പം ഏറ്റവും റേറ്റിങ്ങ് കൂടിയ പ്രദേശത്തെ ഊബർ ഏതാണ് ആ ക്യാമ്പായാലും മതി ആ ഇന്നോവയാണല്ലേ

അതിന് എങ്ങനെയാണ് ചാർജൊക്കെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ആ ആണല്ലെ ആ ദൂരത്തിൻ്റെ ഇതില് ഡിഫറെൻസ് ഒന്നുമില്ലല്ലോ ഐ മീൻ ഇത്ര ദൂരം ഇത്ര ലിമിറ്റ് വച്ചേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ ആ ലഗേജിനു ലിമിറ്റ് വല്ലതുമുണ്ടോ

ആ ഞങ്ങള് നാലു പേരുണ്ട് എത്ര പേർക്ക് പോകാൻ പറ്റും

ആ ഏഴ് പേർക്കല്ലെ ഇല്ല ഞങ്ങള് നാല് പേരേയുള്ളൂ ആ ആ സെക്യൂർഡ് ആയിരിക്കൂമല്ലോ അല്ലേ ആ ആയിരിക്കുവല്ലെ ആ ഓക്കേ ടി ശരി താങ്ക് യു